ആ അതെ ആ ഓക്കെ മാഡം ആ ഓ ഉണ്ട് ഉണ്ട് മാഡം ഒന്ന് നമ്മുടെൽ ഇപ്പം ശരിക്കും പ പ പാക്കറ്റ് മാർക്കറ്റ് ശരിക്കും കോംപറ്റീറ്റീവായത് കൊണ്ട് ധാരാളം കസ്റ്റമേഴ്സ് നമുക്കുണ്ട് നമ്മളെ റോസ്റ്റ് ശരിക്കും നമ്മൾ വെയിലിനെ മാത്രം ആശ്രയിച്ചല്ല അല്ലാതെ തന്നെ റോസ്റ്റ് ചെയ്ത് നമ്മൾ പച്ച തേങ്ങയിൽ ശരിക്കും ചിരട്ട തന്നെ കത്തിച്ചുള്ള ആ റോസ്റ്റ് ചെയ്ത് നമ്മൾ നാ നാടൻ റോസ്റ്റിംഗിൽ ആണ് നമ്മൽ കൊപ്ര ഉണക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ നമ്മുടെ വെളിച്ചെണ്ണേൻ്റ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായിരിക്കും നല്ല രുചിയായിരിക്കും നമ്മൾ കുക്കിംഗിനും എല്ലാത്തിനും നമുക്ക് നല്ലതാണ് നമുക്ക് പിള്ളേർക്കൊക്കെ ആ നമുക്ക് പച്ച വെളിച്ചെണ്ണ നമ്മൾ കൊടുക്കുന്ന പഴയൊരു ശീലമുണ്ടായിരുന്നല്ലോ അതുപോലെ പോലെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് കാരണം ഇത് വളരെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ വെയിലിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം കൊപ്ര വരുമ്പോഴത്തേക്കും കൊ എ എണ്ണയുടെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും ആ ഇപ്പം നമ്മൾ ഇടക്ക് ഇടക്കിടക്ക് പിന്നെ മഴ വരുന്നോണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൊപ്രക്ക് ക്വാളിറ്റി കുറയും അപ്പോൾ അതുകൊണ്ട് നമ്മളിതിങ്ങനെ വേ ചിരട്ട അതിൽ കത്തിച്ചുള്ള നാടൻ ഇതിൽ ഷീ നല്ല തിക്കുള്ള ഷീറ്റിൻ്റ മുകളിലാണീ കൊപ്ര ഉണക്കുന്നത് അപ്പോൾ അതിൻറ്റേതായിട്ടുള്ള റോസ്റ്റിംഗിനുള്ള ഒരു ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് നമ്മളുടെ വെളിച്ചെണ്ണ വൻ ഡിമാൻഡാണിപ്പോൾ നല്ല ആ നല്ല ഡിമാൻഡുണ്ട് നമുക്ക് മാർക്കറ്റിൻ്റെ നമ്മൾ വിലയും വളരെ കംപാരിറ്റീവിലി നമ്മൾ റീസണബിളായിട്ടാണ് കൊടുക്കണത് ചിലപ്പം മാർക്കറ്റിനേക്കാളൊരു പത്ത് രൂപ കൂടും മാഡം പക്ഷേ ക്വാളിറ്റി ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരും അത് മാഡം ഉ ഉപയോഗിച്ച് നോക്കുമ്പോൾ മാഡത്തിനത് മനസ്സിലാവും സിമ്പിളായിട്ട് മാഡം ഒരു ആ ഉവ്വ് മാഡം അതിനുള്ള വോളുയം ഉണ്ടോ എങ്കിലേ ആ കാരണം ഓ കുറച്ച് എങ്കിലിത്തിരി കൂടുതലെടുക്കണമെങ്കിൽ കൊടുത്ത് വിടാം ആ ആ ഓ ഓ തീർച്ചയായിട്ടും മാഡം തീർച്ചയായും അസോസിയേഷനായിട്ടത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിമാൻഡ് കൂടുതൽ മാഡം തരികയാണെങ്കിൽ തീർച്ചയായിട്ട് ഞങ്ങൾ അവിടെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാം ആ മാഡം ഞങ്ങൾ അത് പച്ച ആ അതായത് നമ്മളുടെ ഈ ഉരുക്ക് വെളിച്ചെണ്ണാന്ന് പറയണൊരു ഓ വെളിച്ചെണ്ണയ്ക്ക് കൂടെ നമ്മളിത് ചെയ്യുന്നുണ്ട് പുതിയൊരു ട്രെൻഡ് ആവണുണ്ടതിന് അപ്പോൾ അത് തേങ്ങാ പാലരച്ചെടുത്ത് പാൽ തെളിച്ച് അതിനെ ഉരുക്കിയാണ് എടുക്കണത് ഉരുക്ക് വെളിച്ചെണ്ണ പക്ഷേ അത് ഇന്നാൻ്റെ നമ്മൾ ലേബറും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മളാദ്യം ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി പക്ഷേ അത് കംപാരിറ്റീവിലി മാർക്കറ്റ് വിലയിലത് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റൂന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തത് കാരണവാണ് താൽക്കാലത്തേക്കത് സ്റ്റോപ്പ് ചെയ്തെന്നേ ഉള്ളൂ അത് പൂർവ്വാധികം ആ ഭംഗിയായി വീണ്ടും ഒന്നും കൂടത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കത് കൃത്യമായാവും അപ്പോഴത്തേക്കും ഞാൻ മാഡത്തിനോട് പറയാം ഞാൻ ഇൻഫോം ചെയ്യും തീർച്ചയായിട്ടും മാഡത്തിൻ്റെ നമ്പറ് സേവ് ചെയ്ത് ഞാൻ ഇൻഫോം ചെയ്യാം മാഡത്തിനെ ആ ഓക്കെ ഓക്കെ